യോഗ ക്ലാസ്സിൽ ഞാൻ കൂടിയിട്ടുണ്ട് കൂട്ടുകാരുമായിട്ട് കുറച്ചുനാൾ പോയി യോഗയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനു മുന്നേ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യുകയായിരുന്നു ക്ലാസ്സിലാകുമ്പോൾ നമുക്കു പറഞ്ഞു തരാനും കാണിക്കാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തന്നു നമുക്ക് തിരുത്തി മുന്നോട്ടു പോകാൻ സാധിക്കും വീട്ടിൽ ആകുമ്പോൾ ഇപ്പം നമ്മൾ തനിയെ ചെയ്യുന്നു അതിപ്പോൾ അതിലെന്തെങ്കിലും പാളിച്ച പറ്റിയാലും നമ്മളറിയുന്നില്ല അതങ്ങനെ ചെയ്തു പോകുന്നു യോഗ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനും മറ്റ് അസുഖങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കും അതു നമ്മൾ വീട്ടിലാണെങ്കിലും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന നല്ലതാണ് പിന്നെ അതു തെറ്റിയെന്നാൽ അതൊരു ദോഷമായിട്ടും വരും പിന്നെ നമുക്ക് എപ്പോഴും ഇപ്പം യോഗ ക്ലാസ്സിൽ പോയി പങ്കെടുക്കാൻ സാധിക്കുകയില്ല ഇപ്പം നമുക്ക് ഈ ഓൺലൈനിലൊക്കെ യോഗ ക്ലാസ്സുകളെക്കുറിച്ചു പറഞ്ഞു തരുന്നുണ്ടല്ലോ നമ്മളതൊക്കെ കണ്ടും കേട്ടും സ്വന്തമായിട്ടു ചെയ്യാം പിന്നെ നമ്മൾ അനുവർത്തിച്ചു പോകുന്നത് അതിന് ഏറെക്കുറെ ഒരു സമയനിഷ്ട വെച്ച് ചെയ്തു പോരുന്നത് എപ്പോഴും ഉചിതമായിരിക്കും ക്ലാസ്സിൽ പോകാതെ സ്വന്തമായിട്ടു വീട്ടിൽ കൃത്യസമയത്തു തന്നെ ചെയ്യുന്നത് നല്ലൊരു കാര്യം പിന്നെ നമുക്ക് തെറ്റു പറ്റിയോ ഇല്ലയോയെന്ന് അറിയണമെങ്കിൽ ക്ലാസ്സിൽ പോയി പരിശീലിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഓൺലൈനിൽ ഉള്ള അതെ നോക്കി വീട്ടിൽ ഇരുന്നെങ്ങാനും ചെയ്യാം നമുക്ക്